കലയും കരകൗശല വസ്തുക്കളും നമ്മുടെ സംസ്ഥാനത്തിന്റെ തനിമയെ എടുത്തു കാണിക്കാനും അതേപോലെതന്നെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകാനും സാധി സാധിക്കുന്നു അതുമൂലം കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകാനും അതിന്റെ മൂല്യം അറിയിക്കാനും നമുക്ക് ഇതുമൂലം സാധിക്കുന്നു അതുപോലെതന്നെ പലതരത്തിലുള്ള കലകൾ ഉണ്ട് പെയിൻറിങ് ഉണ്ട് അതേപോലെതന്നെ നൃത്തങ്ങൾ ഉണ്ട് പാട്ടുണ്ട് അതേപോലെതന്നെ ഇൻസ്ട്രുമെൻസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള കലകൾ ഉണ്ട് അതുപോലെതന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ട് തേങ്ങ ചരട്ടി കൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളും അതേപോലെതന്നെ മരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളും ഉണ്ട് ഇത് നമ്മൾ കുറെ കയറ്റി അയക്കുന്നുമുണ്ട് ഇത് ടൂറിസത്തിന് വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുക്കളാണ് കലയും അതേപോലെ കരകൗശല വസ്തുക്കളും അതേ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറേ മ്യൂസിയങ്ങൾ ഉണ്ട് ഇത് പ്രദർശിപ്പിക്കാൻ